നമ്മുടെ മലയാള ഭാഷയിൽ നമുക്ക് രസകരമായി തോന്നിയ വാക്കുകളെന്നു പറയുകയാണെങ്കിൽ അങ്ങനൊക്കെ പറയും ധാരാളം വാക്കുകളുണ്ട് അതായത് നമ്മുടെ നാടൻ ശൈലിയിൽപ്പെട്ട അതുപോലെ തന്നെ നമ്മളുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഷയില് മലയാള ഭാഷയാണ് എനിക്ക് നല്ല കൗതുകവും രസകരവുമായ ഭാഷയാണ് ഭാഷാ പ്രയോഗങ്ങളാണ് നമ്മുടെ മലയാള ഭാഷയിൽ ധാരാളം വാക്കുകളുണ്ട് ധാരാളം മീനിങ്ങുകളുണ്ട് അതായത് നമ്മുടെ കുലസ്ത്രീകൾ അതുപോലെ തന്നെ കാപട്യം പിന്നെ കഥകളി ചവിട്ടുനാടകം എന്നീ ഓരോ വാക്കുകൾക്കും അതിന്റെതായ ഒരു വിശദീകരണം അതിനൊപ്പം തന്നെ നൽകുന്നുണ്ട് നമ്മുടെ ഈ മലയാള ഭാഷ അതുപോലെ തന്നെ നല്ലൊരു വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ മലയാള ഭാഷയ്ക്കു നമ്മളെപ്പോഴും നല്ലൊരു വില കൊടുക്കുന്നുമുണ്ട് നല്ലൊരു ഇതുമാണ്